സൈക്കിള് നല്ലോണം നോക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അതിനെ നല്ല രീതിയിൽ കഴുകി ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി ചെളിയിലോ അങ്ങനെ എന്തെങ്കിലും ഇറക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയില് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുന്നതാണ് സൈക്കിൾ നല്ലോണം നോക്കി നടത്താനുള്ള ഒരു കഴിവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പം നമ്മള് തുടർച്ചയായിട്ടുള്ള യാത്രയൊക്കെ ആണെങ്കിൽ നമുക്ക് വല്ലാതെ മടുപ്പ് പിടിക്കും കാരണം ചവിട്ടി ചവിട്ടി നമുക്ക് കാലു വേദനയെടുക്കും അപ്പം അതൊരു ഭയങ്കര പ്രശ്നമാണ് കാരണം തുടർച്ചയായിട്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ യാത്ര പോയി കൊണ്ടിരുന്നു കഴിഞ്ഞാല് നമുക്ക് വല്ലാതെ മടുപ്പായിരിക്കും വല്ലപ്പോഴും ഒരു യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പം തുടർച്ചയായിട്ടുള്ള യാത്രയില് നമുക്ക് വല്ലാതെ മടുപ്പ് പിടിക്കും അപ്പം നമുക്ക് എങ്ങനെ ആണെന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ജാ ജാഗ്രതയും പ്രചോദനവും നൽകുന്ന ആൾക്കാരൊക്കെ വേണം ജാഗ്രത എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ന ഞങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും വ വണ്ടി കൊണ്ടുപോകുമ്പോഴൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്